സാങ്കേതികവിദ്യയിലെ പുരോഗതി ലോകത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ഒരത്യാവശ്യമായ സാങ്കേതിക സാങ്കേതികവിദ്യ വളരെ അത്യാവശ്യമായ കാര്യമായി മാറിയിട്ടുണ്ട് അതൊത്തിരി കുടുംബജീവിതത്തില് സാമൂഹിക ജീവിതത്തിലും വളരെയേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് ഈ സാങ്കേതികവിദ്യയിലെ പുരോഗതി മൂലം കരണ്ട് ചാർജടയ്ക്കുക അതേപോലുള്ള കരമടയ്ക്കുക ബാങ്ക്യാവശ്യങ്ങള് ഇങ്ങനെ വളരെയേറെ കാര്യങ്ങള് ഈ സ്മാർട്ട് ഫോൺ മുഖാന്തരം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് ഞാനതിപ്പോളധികം ഉപയോഗിക്കുന്ന ആളല്ല സ്മാർട്ട് സാധാ ഫോൺ മാത്രം ഉപയോഗിക്കുന്ന ആളാണ് പക്ഷേ ഈ വക കാര്യങ്ങളെല്ലാം വീട്ടിൽ മക്കള് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോഴതുകൊണ്ട് വളരെയേറെ എളുപ്പമുണ്ട് ഷോപ്പിങ്ങാണെങ്കിലും കാര്യങ്ങളെക്കുറിച്ചന്വേഷിക്കാനാണെങ്കിലും ബാങ്കിംഗ് പേയ്മെൻറ്റ് ഹോട്ടലുകള് ബുക്കെയ്യാന് റൂം ബുക്കെയ്യുക ഇങ്ങനെയുള്ള വളരെയേറെ കാര്യങ്ങള് ഇതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് വളരെയേറെ പുരോഗതി ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ഈ ഫോണിൻ്റെയൊക്കെ ഈ സാങ്കേതികവിദ്യയിലെ പുരോഗതി അതുണ്ടാക്കിയ മാറ്റങ്ങൾ ധാരാളമാണ് പക്ഷെ അത് സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തും ധാരാളമാണ്